ആ ഹലോ എസ് ബി ഐ ബാങ്ക് അല്ലെ ഞാന് ഇന്നൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് എടുത്തായിരുന്നു അപ്പം അതിൻ്റകത്ത് നോക്കിയപ്പം കുറച്ച് പൊരുത്തേക്കേടുണ്ടായിരുന്നു ലൈക് പേയ്മെൻറ് കുറച്ച് കൂടുതല് ഓട്ടോ പേ ചെയ്തപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുക ലൈക്ക് ബില്ല് പോയേക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലേക്കാണ് ആ ബില്ല് പോയേക്കുന്നത് അപ്പം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ ആ ഓക്കെ ഓക്കെ ഞാൻ അവരെ വിളിച്ചോളാവേ ഹലോ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ ഓ ഓക്കേ ഞാനൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് നോക്കിയപ്പോൾ അതിൻറ്റകത്ത് ഇലക്ട്രിസിറ്റി ബില്ല് കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തേക്കുന്നത് എനിക്ക് വന്നതിനേക്കാളും കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി ബിൽ എടുത്തേക്കുന്നത് ഇതിനെന്താ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ എൻ്റെ ബാക്കി എമൗണ്ട് എനിക്ക് റീഫണ്ട് തന്നേരെ അല്ലെങ്കിൽ ഞാൻ ലീഗലി പോകുന്നതായിരിക്കും ഓക്കെ